നമ്മളെ ഏറ്റവും വലിയ ശക്തിയും ബലഹീനതയും ഒന്നാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഒന്നാണ് എന്താണെന്ന് അറിയുമോ സ്നേഹം ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ് നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരാളോട് സ്നേഹം തോന്നി നമ്മളെ അച്ഛനോട് അമ്മേനോട് ആങ്ങളമാരോട് അനിയത്തീനോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വിട്ടു വീഴ്ചയ്ക്കും തയ്യാറായിരിക്കും അവരെ സ്നേഹിക്കുകയെന്നുള്ള ഉദ്ദേശത്തോടെ ആരും ആ നമുക്ക് ശത്രുക്കളെ ഉണ്ടാവില്ല ശത്രു ശത്രുക്കൾ വളരെ കുറവായിരിക്കും ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം എപ്പോഴോ നന്നായി നല്ലൊരു നല്ലൊരു ലോകമായി മാറും കാരണം എന്താ നമ്മൾ നമ്മളായിട്ട് നമ്മളൊരു പ്രശ്നത്തിനും ഉണ്ടാക്കില്ല ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ക്ഷമിക്കുന്നു എന്തുകൊണ്ട് സ്നേഹം ഉള്ളതുകൊണ്ട് പക്ഷെയെങ്കിൽ ഈ സ്നേഹം നമുക്ക് ദോഷമാവും എങ്ങനെ നമുക്ക് ദോഷമാവും എന്നു വച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നു പക്ഷെ തിരിച്ച് നമുക്ക് അത് കിട്ടുന്നില്ല തിരിച്ച് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ നമ്മളെ എല്ലാ അധ്വാനവും നമ്മളെ എല്ലാം പിന്നെ ഏറ്റവും നല്ല കാര്യങ്ങളും നമ്മൾ എല്ലാം എന്താ പയുക നമുക്ക് നമ്മൾ ജീവിതം മുഴുവൻ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മാറ്റി വയ്ക്കുന്നു പക്ഷെ അവർ ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല മൈന്റ് ആക്കുന്നില്ല അങ്ങനെ വച്ചു നോക്കുമ്പം നമുക്ക് എന്താ കാര്യം കാര്യം വേണ്ടിയിട്ടല്ല നമ്മൾ സ്നേഹിക്കുക പക്ഷെ നമുക്ക് അതിനെക്കൊണ്ട് ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ബലഹീനതയും സ്നേഹമാണ് പക്ഷെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നു അച്ഛനെ സ്നേഹിക്കുന്നു അമ്മേനെ സ്നേഹിക്കുന്നു ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭാര്യേനെ സ്നേഹിക്കുന്നു ഒക്കെ ആവുമ്പം നമ്മളെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും സ്വസ്ഥതയുണ്ടാവും കാരണം എന്താ നമ്മളൊരു പ്രശ്നത്തിന് പോയില്ല ഒരു കച്ചറ ഉണ്ടായാലും നമ്മളത് ക്ഷമിക്കുന്നു നമ്മൾ അതിനെ അതിൻ്റെ മേലിൽ പിടിച്ചു തൂങ്ങി തൂങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഷളാക്കുന്നില്ല അവിടെ സ്നേഹമുണ്ട് എന്തുകൊണ്ടാണ് മെയിൻ റീസൺ സ്നേഹമുണ്ട് സ്നേഹമുള്ളതും കൊണ്ട് നമ്മളതിന് പ്രശ്നത്തിന് ഉണ്ടാക്കി പോകുന്നില്ല അപ്പം നമ്മൾ അപ്പം നമ്മൾ അവിടെ ഭയങ്കര ശക്തിയാണ് നമ്മൾ ഏറ്റവും വലിയ ശക്തി അവിടെ എന്താണ് സ്നേഹം നമ്മൾ സ്നേഹിച്ചു തോൽപ്പിക്കുകയാണ് പക്ഷെ ചില സമയത്ത് നമ്മൾ തോറ്റുപോവും സ്നേഹിച്ചാൽ കാരണമെന്താ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക മാത്രമേ ഉണ്ടാവുളളൂ ഇങ്ങോട്ടേയ്ക്ക് ഒന്നും ഉണ്ടാവില്ല അതിനെക്കൊണ്ട് നമുക്ക് എന്താ നമ്മൾ ദോഷം ചെയ്യുകയല്ലേ ചെയ്യുക നമ്മൾ ചില ഫ്രണ്ട്സിനെ ഒക്കെ നമ്മൾ അമിതമായി വിശ്വസിക്കുന്നു അവർ നമ്മൾക്കിട്ട് പണിയുന്നു എന്താ നമ്മളെ ജീവിതം നശിച്ചു പോവുന്നു നമ്മൾ ബാക്കി സ്നേഹിക്കുന്ന ആൾക്കാരെ എന്തു ആൾക്കാരേയും കൂടി വിഷമത്തിലാക്കും നമ്മൾ എല്ലാ ഫ്രണ്ട്സൊക്കെ ചതിക്കുന്ന കേട്ടിട്ടില്ലേ ചതിക്കുമെന്ന് അപ്പോൾ നമ്മൾ ആകെ ചിലരെ ചില ആൾക്കാർ ഡിപ്രഷൻ ആവുമെന്ന് ഡിപ്രഷനായി കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല അതായത് ഈ ലൗ എന്നു പറയുന്നത് പിന്നെ ഒരു ആണിനോടൊരു പെണ്ണിനോട് തോന്നുന്നത് മാത്രമല്ല ലൗ അച്ഛനോട് തോന്നാം അമ്മേനോട് തോന്നുന്നതൊക്കെ സ്നേഹമാണ് ഇതൊക്കെ സ്നേഹത്തിൻ്റെ പേരിലാണ് പക്ഷെ ഇതൊക്കെ ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ ജീവിതം നോക്കാൻ സമയം ഉണ്ടാവില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ അയ്യോ എൻ്റെ അച്ഛൻ എന്തു ചെയ്യുന്നു അമ്മേനെ സ്നേഹിക്കണം അനിയനെ സ്നേഹിക്കുന്നു ആങ്ങളമാരെ സ്നേഹിക്കുന്നു പക്ഷെ എല്ലാ അച്ഛനും അമ്മമാരും തിരിച്ചും എല്ലാ അച്ഛനമ്മമാരും ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുമായിരിക്കും അനിയനും അനിയത്തിയുമൊക്കെ അവരെ കുടുംബവും ജീവിതവും ഒക്കെ ആവുമ്പോൾ നമ്മൾ അനിയൻ അനിയത്തിയെന്ന് പറഞ്ഞിട്ട് പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അതൊരു ശല്യമാവും അല്ലേ അപ്പോൾ ഏറ്റവും വലിയൊരു ബലഹീനതയും ഏറ്റവും നല്ല ഒരു ശക്തിയും സ്നേഹമാണ്